ഹലോ ഹലോ അമൽ ബേക്കറി അല്ലേ അതേ എനിക്കൊരു കേക്ക് വേണമായിരുന്നേ ഏതൊക്കെ കേക്ക് ഉണ്ട് അവിടെ ഏതൊക്കെ കേക്ക് ഉണ്ട് അവിടെ വാനിലയ്ക്ക് എന്നാ വില ബ്ലാക്ക് ഫോറസ്റ്റോ ആ എന്നാൽ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മതിയേ ആ ഞാൻ ആ ചാലച്ചിറയിലെ ആ കുരിശുവീട് വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലെ ആണേ എൻ്റെ ആ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടി ആയിരുന്നൊരു കേക്ക് അപ്പോൾ ശരി അത് എപ്പോഴത്തേക്ക് റെഡി ആകും എനിക്ക് വൈകുന്നേരത്തേക്കാണ് വേണ്ടത് വൈകിട്ട് ഒരു ഏഴ് മണി ഒക്കെ ആകുമ്പോൾ കിട്ടിയാൽ മതി

ഞങ്ങൾ വന്ന് മേടിച്ചോളാം

ആ ആ കൊച്ചിൻ്റെ പേര് കേക്കിൽ എഴുതണം ആ ആ തിരി ആ തിരിയും കൂടെ വെച്ചോ തിരി ഒരു പതിനഞ്ച് വയസ്സിൻ്റെ തിരി പതിനഞ്ച് എന്നുള്ള ഒരു തിരിയും പിന്നെ ഹാപ്പി ബർത്ത്ഡേ സോന എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതും കൂടെ വേണേ ആ അങ്ങനെ അത് എഴുതണം പിന്നെ ആ പിന്നെ അവിടെ എങ്ങനെയാണ് ആ പൈസ ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴത്തേക്കിനും കൊണ്ടുവരാം എന്നാ വേണമെന്ന് പറഞ്ഞാൽ മതി ആ ആ ആ ഞാൻ എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്തുതരാം

ആ ആ അവിടെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നത് ആണോ അതോ വല്ലയിടത്ത് നിന്നും എടുത്ത് വയ്ക്കുന്നതാണോ ആ ആ ആ നിങ്ങളുടെ ആ നിങ്ങളുടെ ബേക്കറിയെ കുറിച്ച് ഇങ്ങനെ നന്നായിട്ട് കേട്ടു അതാണ് പിന്നെ ഞാൻ അവിടുന്ന് തന്നെ എടുക്കാം മേടിക്കാം എന്ന് വിചാരിച്ചതേ ആ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചത് ആ പിന്നെ എന്താണ്

ആ ആ ആ അതാണ് ആ ആ അതുകൊണ്ടാവും ആ കുരിശ്ശടിയുടെ അപ്പുറത്തായിട്ടാണ് ആ കുരിശ്ശടിയുടെ അവിടുന്ന് അടുത്തതിൻ്റെ അടുത്ത അവിടെ കുറച്ച് കടകൾ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തെ വീടാണ് ആ ആ രണ്ടായിരം ആ രണ്ടായിരം അത്രയില്ല കൊടുത്ത ആ ആ ആ ഞാൻ അത്രയും പേ ഇതില്ല വിലയില്ല അതുകൊണ്ടാണ് പിന്നെ പിന്നെയും നിങ്ങളുടെ അവിടുത്തെ കേക്ക് നല്ലതാണ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ തന്നെ അങ്ങ് മേടിച്ചേക്കാം പൈസ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞാലും അവിടുന്ന് തന്നെ മേടിച്ചേക്കാം എന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്

ആ ഏഴ് മണിയാകുമ്പോൾ വേണം ആ ആ ശരി ശരി ആ എന്നാൽ ഓക്കെ എന്നാൽ ആ ആ ശരി ശരി ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ